ഒരു ഹൈക്കിനിടെ പോയിട്ട് സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് അത് പോസിറ്റീവായ കാര്യമല്ല നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പോലത്തെ മല നിരകളിൽ പോയിട്ട് വാട്ടർ ഫാൾസിലെ മലനിരകളിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നപ്പം അതിൻ്റെ വെള്ളത്തിലേക്കിങ്ങനെ ജസ്റ്റ് ഇറങ്ങിയതാണ് അപ്പം അവിടെ നിന്ന് സ്ലി സ്ലിപ്പായിട്ട് ജസ്റ്റ് ആ പാറയുടെ സൈഡിലൂടായിട്ട് താഴത്തേക്ക് കുറച്ച് കൂടുതൽ സ്പേസില്ല കുറച്ച് സ്പേസിലേക്ക് വീണ രീതിയിലാണ് വന്നത് എനിക്കതീ കുറച്ച് അപ്രതീക്ഷിതമായിട്ട് വിചാരിക്കാണ്ട് നടന്ന സംഭവമാണത് ഇനി സാധാരണ തെന്നി പായലുണ്ടായാലുണ്ട് എന്നാലും സാധാരണ പോകുന്ന വഴിയിൽ കൂടി തന്നെയാണ് അത് നമ്മൾ പോയിട്ടുള്ളത് പക്ഷെ അങ്ങനെ തെന്നി ജസ്റ്റ് പെട്ടെന്ന് അതിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല ജസ്റ്റ് മിസ്സായി നമ്മൾ താഴത്ത് നമ്മുടെ ജീവൻ തന്നെ വേറെ രീതിയിൽ ആയി പോയേനെ പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ടിങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ട് ഫോട്ടോ എടുക്കാറ് മസ്റ്റായിട്ടുണ്ട് അത് വെച്ചാൽ ഞങ്ങൾ പോയത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് എന്നും ഫോട്ടോ എടുക്കാറുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ചെയ്യാറുണ്ട് അത് ഏതെങ്കിലും ഒരു പ്ലേസിൽ പോയിട്ടുണ്ടെങ്കിൽ ആ പ്ലേസിൽ നിന്നും മസ്റ്റായിട്ടും ആ ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റത്തെ ദിവസം അത് എഡിറ്റ് ചെയ്തോ അല്ലാത്ത രീതിയിലോ പോസ്റ്റും ചെയ്യാറുണ്ട്